ഇപ്പോൾ ഇത് വെല്ലുവിളി നിറഞ്ഞ പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് പണ്ട് ഒരു ഷർട്ട് തയ്ക്കാൻ പിന്നെ തുന്നാൻ കൊടുത്തിട്ട് അവർ അത് വേണ്ടിയവണ്ണം ചെയ്തു തരാമെന്ന് പറഞ്ഞു പക്ഷെ അവസാനം വന്നപ്പോൾ അതിന് ഒത്തിരി ന്യുനതകൾ ഉണ്ടായിരുന്നു ആ ന്യുനതകളൊക്കെ പരിഹരിച്ചു വന്നപ്പോഴത്തേക്കിന് അത് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റത്തിലാത്ത അവസ്ഥയിലേക്കായി വീണ്ടും അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറ്റം കൊണ്ടല്ല ഇത് നഷ്ട്ടപ്പെട്ടതെന്നും അതുകൊണ്ട് നഷ്ടപരിഹാരം ഒന്നും തരാൻ പറ്റത്തില്ലെന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം വേണ്ടെങ്കിൽ അത് കളയുക എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചു അപ്പോൾ എനിക്ക് അത് ഒരു തരത്തിലും അത് ഉൾകൊള്ളാൻ കഴിഞ്ഞില്ല കാരണം അവരുടെ വസ്ത്രം തുന്നുന്നതിലുള്ള അപാകത കൊണ്ട് പറ്റി പോയ കാര്യമാണ് അത് എങ്കിലും അദ്ദേഹം അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അത് അത് ഉൾകൊള്ളാൻ അദ്ദേഹം തയ്യാറായില്ല പകരം അത് കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത് അപ്പോൾ പിന്നെ എന്താണ് അതിന് പരിഹാരമെന്നും ചോദിച്ചപ്പോഴും അദ്ദേഹം അതിന് ഒന്നും ഉത്തരം പറഞ്ഞില്ല പിന്നെ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി പോയി ഞാൻ പിന്നെ പുതിയ ഒരു തുണി എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കൈയിൽ തയ്ക്കാൻ കൊടുത്തു അത് പിന്നെ അദ്ദേഹം സാമാന്യം നല്ലതായിട്ട് തന്നെ ചെയ്തു തന്നു പക്ഷെ ആ രണ്ടെണ്ണത്തിൻ്റെ കൂലി അദ്ദേഹം ചോദിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ തമ്മിൽ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ആദ്യത്തെ അയാളുടെ വർക്ക് അത് തുന്നിയതെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് അദ്ദേഹം അതിൻ്റെയും കൂലി ആവശ്യപ്പെടുകാണ് ഞാൻ പക്ഷെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് അത് ഞാൻ അതിനെ അംഗീകരിച്ചില്ല അത് കാരണം അത് അത് കാരണം അത് പിന്നെ അതിനോടുള്ള അതിനുള്ള കൂലി കൊടുക്കാൻ പറ്റത്തില്ലെന്ന് തന്നെ ഞാൻ ഉറച്ച് നിന്നു പക്ഷെ അത് രണ്ടിൻ്റെയും കൂലി വേണമെന്നും പറഞ്ഞിട്ട് അദ്ദേഹവും ഉറച്ച് നിന്നു അങ്ങനെ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി ഒടുവിൽ പിന്നെ ആദ്യത്തെ ഷർട്ടിൻ്റെ തുന്നൽ കൂലിയിൽ പകുതി കൊടുക്കാമെന്നുള്ള ധാരണയിൽ ഞാൻ എത്തി ആ അദ്ദേഹവും പിന്നെ ഒടുവിൽ അങ്ങനെ സമ്മതിച്ചു അങ്ങനെ ഒടുവിൽ ഉപയോഗിക്കാത്ത ഷർട്ടിൻ്റെ തുന്നൽ കൂലിയിൽ പകുതിയും പുതിയ ഷർട്ടിൻ്റെ തുന്നൽ കൂലിയും കൊടുത്തിട്ട് ആ പ്രശ്നം അവിടെ അവസാനിപ്പിച്ചു അവസാനിപ്പിച്ചു പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നത് എനിക്ക് തന്നെ ആണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ആദ്യം കൊടുത്ത തുണിയെ പൂർണ്ണമായിട്ടും തന്നെ അത് നഷ്ട്ടപ്പെട്ടു പോയി അത് ശരിയാക്കാൻ പറ്റില്ല ഒരു ഉപയോഗോം ഇല്ലാതായി പോയി തുണിയുടെ വിലയും പോയി അതിൻ്റെ അപ്പം അതിൻ്റെ തയ്യൽ കൂലിയുടെ പകുതിയും കൊടുക്കേണ്ടി വന്നു എന്ന് പറയുമ്പം യാന്ത്രികമായിട്ടും എനിക്ക് തന്നെയാണ് നഷ്ട്ടം എങ്കിലും അതൊരു പ്രശനം ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് അയാൾ പറഞ്ഞത് അതനുസരിച്ചു സമ്മതിച്ചു അദ്ദേഹത്തിന് അതിൻ്റെ തുന്നൽ കൂലിയുടെ പകുതി പൈസ കൊടുക്കുകയും ഇതാക്കുകയും ചെയ്തു ഇങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇങ്ങനെ ഇടപെടുന്ന ആൾക്കാർ പലതും പല പക്ഷെ യഥാർത്ഥമായിട്ടുള്ള പണി അറിയാവുന്നവരോ അല്ലെങ്കിൽ അത് ഭംഗിയായി ചെയ്യാവുന്നവരോ അല്ല സമൂഹത്തിൽ പലരിലും പല ഇടത്തും ഉള്ളത് ഇതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും ചിലപ്പോഴക്കെ നമുക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ട് അതൊക്കെ ഇപ്പം ശരിയായിട്ടുള്ള പിന്നെ ആ തൊഴിൽ അറിയാത്ത ആൾക്കാർ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുകയും അത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് ഇതിനെ കുറിച്ച് ഇവിടെ പറയാനുള്ളത്